രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകുമ്പോൾ എന്നിട്ടമ്പലത്തിലെത്തി അവിടെ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചുവന്ന് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയിലേക്കു നമ്മൾ ഇൻവോൾവാകുമ്പോൾ സാധാരണ ദിവസത്തേക്കാൾ കൂടുതൽ നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരെനർജിയും മനസ്സിനു വ്യത്യസ്തമായിട്ടുള്ള ഒരനുഭവം തരാറുണ്ട് അതെനിക്ക് വളരേ ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ എനിക്കിഷ്ടപ്പെട്ട അമ്പലമെന്നു പറയുന്നത് ഒരു സ്ഥാനമൊന്നുമില്ലെങ്കിലും പക്ഷേ എല്ലാ ഞാനൊരു ദിവസം പോകണമെന്നു തീരുമാനിക്കുമ്പോൾ ഒരു പ്രത്യേക അമ്പലം തലേദിവസം ചൂസ് ചെയ്യുകയും അവിടെ പോകാനായിട്ട് തയ്യാറെടുത്ത് പോയി വരികയുമാണ് ചെയ്യണെ ഇങ്ങനേ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടമെങ്കിലും സ്വകാര്യമായിട്ടുള്ള വീടുകളിൽ നടത്തുന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളോടൊന്നും താത്പര്യം ഇല്ല അതിനോടൊന്നും വിശ്വാസമില്ല പഷെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ക്ഷേത്രദർശനങ്ങൾ അങ്ങനെയുള്ള കർമ്മങ്ങളോടു മാത്രമാണ് താത്പര്യം അതാണ് എന്നെ കൂടുതലായിട്ട് വളരെ നല്ല പോസിറ്റീവ് ആയിട്ട് മാറ്റാനായിട്ട് എനിക്കു തോന്നിയിട്ടുള്ള കാര്യം വിശ്വാസത്തിൽ ക്ഷേത്രങ്ങളിൽ പോകുക അവിടെ പങ്കെടുക്കുക ഉത്സവങ്ങളിൽ പങ്കെടുക്കുക അതാണ് എനിക്കിഷ്ടം